ഓൺലൈനായിട്ടുള്ള നൃത്ത പരിശീലനങ്ങൾ നൃത്ത വ്യവസായത്തെ വളരെ അധികം സ്വാധീനിച്ചിട്ടുണ്ട് കാരണം പണ്ടൊക്കെ നമ്മൾ നൃത്തം പരിശീലിച്ചതൊക്കെ മറ്റേ ഡാൻസ് അറിയാവുന്ന വലിയ വലിയ നൃത്ത പരിശീലകൻ്റെ പരിശീലകയുടെയോക്കെ കീഴിലാണ് അപ്പം നമ്മളവർ പറയണ സമയത്ത് അവർ പറയുന്ന സ്ഥലത്ത് നമ്മൾ ചെന്ന് പരിശീലിക്കണം അപ്പം അതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും അതിന് പറ്റീന്ന് വരില്ല കാരണം നമുക്ക് നമ്മുടേതായ തിരക്കുകളും കാര്യങ്ങളുമുണ്ടാവും അപ്പതുമൂലം ഡാൻസ് പഠിക്കാത്ത കുറെ അധികം ആൾക്കാരുണ്ട് അതേപോലെ തന്നെ അവർക്ക് ഫീസ് കൊടുക്കാന്ന് വച്ചിട്ടുണ്ടെങ്കിൽ വളരെ വലിയൊരു തുകയാണത് ഒരു മാസം അവർ നല്ലൊരു അത്യാവശ്യം നല്ലൊരു എമൗണ്ടാണ് വാങ്ങിക്കണത് അപ്പം അതൊരു വർഷമായി കഴിയുമ്പോൾ എത്ര പൈസയാണ് വരുന്നുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ ഓൺലൈനിൽ പഠിക്കാണെങ്കിൽ നമുക്കത് പൈസേടെ കാര്യത്തിലും നമുക്ക് വളരെ ആശ്വാസമാണ് കാരണം നമുക്കൊട്ടും ഒരു പൈസ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമുക്ക് ഡാൻസ് പഠിക്കാൻ പറ്റും ആരുടെ അടുത്തും പോയി പഠിക്കണ്ട ആവശ്യമില്ല സ്വന്തമായിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളു അല്ലാണ്ടിനിപ്പം ആരെങ്കിലും നമ്മളെ ചീത്ത പറയോ അങ്ങനെ എന്തെങ്കിലും വിചാരിക്കണ്ട ആവശ്യമില്ല ചീത്തേനെ പേടിക്കേണ്ട ആവശ്യമില്ല ഇരുന്നോണ്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ തെറ്റുകളെ നമുക്ക് തന്നെ മനസ്സിലാക്കി കളിച്ച് പഠിക്കാവുന്നതേ ഉള്ളു ഇപ്പം നമുക്കിപ്പം എന്തെങ്കിലും ചെറിയ പരിപാടികളുണ്ടെങ്കിന്നാൽ ഇപ്പം നമ്മുടെ വീടുകളിലിപ്പം ചെറിയ പരിപാടികൾ വല്ല കല്യാണം അങ്ങനെ ചെറിയ ചെറിയ ഫങ്ങ്ഷന് ഡാൻസ് കളിക്കാൻ അങ്ങനെ എന്തെങ്കിലും പരിപാടിക്കെണ്ടെങ്കിൽ നമുക്ക് പെട്ടന്ന് കളിക്കാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നൃത്ത അദ്ധ്യാപകനെ വിളിച്ച് കൊണ്ട് വന്ന് അവരിൻറ്റടുത്ത് പഠിപ്പിച്ച് താരാന്ന് വച്ചിട്ടുണ്ടങ്കിൽ അതൊരു നടക്കണ കാര്യല്ലാന്നുണ്ട് അല്ല അതിപ്പം വിളിച്ച് കൊണ്ട് വന്ന് പഠിച്ചാലും അവർക്ക് അത്യാവശ്യം നല്ല പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും ഇരുന്നു കൊണ്ട് പക്ഷേ ഇപ്പം നമ്മൾ ഓൺലൈനായിട്ട് പഠിക്യാണെങ്കിൽ നമ്മൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടന്ന് പ്ലാൻ ചെയ്തൊരു ഡാൻസൊക്കെ കളിക്കാൻ പറ്റിയിരുന്ന് കൊണ്ട് അതിപ്പം വളരെ മനോഹരമായിട്ട് നമുക്ക് ഇപ്പം ആ കളിക്കാൻ പറ്റിയിരുന്ന് കൊണ്ട് അതേപോലെ തന്നെ ഇപ്പം ഡാൻസെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ഡാൻസ് മാത്രം അല്ല ഉള്ളത് പലതരം ഡാൻസൊണ്ട് ക്ലാസ്സിക്കലുണ്ട് സെമി ക്ളാസിക്കലുണ്ട് കണ്ടംപററി അങ്ങനെ നമുക്ക് പറയാൻ പറ്റാത്ത അർ അറിയാത്ത പല ഡാൻസ്കൾ വരെയുണ്ട് ഇരുന്നോണ്ട് അപ്പം നമുക്കിഷ്ട്ടുള്ള ഡാൻസ് നമുക്കിഷ്ട്ടമുള്ള രീതിയിൽ നമുക്ക് കണ്ട് സ്വയമായിട്ട് കണ്ട് പഠിക്കാവുന്നതെയുള്ളൂ ഇരുന്നിട്ട് ആരുടെടുത്തും പോയി അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യങ്ങളൊന്നുമില്ല നമ്മൾ നമുക്കിപ്പം നമ്മൾ പഠിപ്പിക്കണ ടീച്ചർക്കൊരു ഡാൻസ് മാത്രമേ അറിയുള്ളുന്ന് വച്ചിട്ട് നമ്മളത് മാത്രം പഠിക്കുക അങ്ങനെയൊന്നും വേണ്ടായിരുന്നിട്ട് നമുക്കിഷ്ടോള്ളപ്പം ഇഷ്ടോള്ളത്രേം ഡാൻസ് പഠിക്കാൻ വേണ്ടീട്ട് അപ്പം ഓൺലൈൻ കാരണം കുറെ പേരിപ്പം ഡാൻസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം നമുക്കിപ്പം മെയ്യ് വഴക്കം ഇല്ലാത്തവർക്കും ഓൺലൈനായിട്ട് കണ്ട് സ്വന്തം വീട്ടിലിരുന്നിരുന്ന് കളിച്ച് പഠിച്ച് പഠിച്ച് പഠിച്ച് അവർക്ക് മെയ്യ് വഴക്കൊക്കെ വന്ന് ഇപ്പം മിക്കവരും ഡാൻസ് കളിക്കണ കാണായിരുന്നുണ്ട് ഇപ്പം ചെറിയ ചെറിയ പത്ത് സെക്കൻഡ് വീഡിയോകളക്കെട്ടോരോരുത്തരും അവർ എങ്ങനെങ്കിലൊക്കൊന്ന് കളിച്ച് പഠിക്കാൻ നോക്കുവായിരുന്നുള്ളു പക്ഷേ ഇപ്പം നമുക്കിപ്പം ചെന്ന് പഠിക്കുമ്പം നമുക്കത്രേം വരില്ല കാരണമിപ്പം ആരേപ്പ ഏതെങ്കിലും അദ്ധ്യാപകരിപ്പം പറയാണ് എന്തെങ്കിലും പറ മോശമായിട്ട് പറയാണെങ്കിൽ പിന്നെ നമ്മൾ ഡാൻസിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല പക്ഷേ അങ്ങനത്തോരിതൊന്നും നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കുമ്പില്ല നമ്മൾ മാത്രേ ഉള്ളു പഠിക്കുമ്പോൾ ആ പിന്നെ ആ ഉള്ളിലിരിക്കണ ടീച്ചറും ആ ടീച്ചറ് നമ്മളെ കാണുന്നില്ല നമ്മളാണ് ടീച്ചറിനെ കാണുന്നത് അപ്പം നമുക്കങ്ങനെ ചമ്മലോ ഒന്നൂമില്ല നമുക്ക് ധൈര്യപൂർവ്വം നമുക്കിവിടെ നിന്ന് കളിക്കാവുന്നതേ ഉള്ളു അപ്പം ഇത് ഓൺലൈനായിട്ട് നമ്മൾ പഠിക്കുന്ന നൃത്തം നൃത്തം പഠിക്കുന്നത് വളരെ നല്ലതാണ്